ഞാൻ കോട്ടയത്തോട്ട് പോകാനായിട്ട് ഒരു വണ്ടി ബുക്ക് ചെയ്തിരുന്നു പക്ഷേ അത് അഞ്ഞൂറ് രൂപയാണ് പുള്ളി പറഞ്ഞത് പക്ഷെ ഞാൻ ഇത് കോട്ടയത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി എന്നോട് പറയുകയാണ് അത് അഞ്ഞൂറ് രൂപയല്ല അറുന്നൂറ് രൂപ തന്നെ തരണം എന്നോട് അറുന്നൂറ് രൂപയാണ് പറഞ്ഞിരുന്നത് ഞാന് പറഞ്ഞു അല്ല ഞാന് അഞ്ഞൂറ് രൂപയ്ക്കാണ് ബുക്ക് ചെയ്തത് പക്ഷെ പുള്ളി സമ്മതിക്കുന്നില്ല അത് നിങ്ങൾ എജന്സിക്കാരെ വിളിച്ചു ചോദിക്ക് എജന്സിയോട് പറ അവർ ആ പറഞ്ഞ തുകയാണ് ഞാന് നിങ്ങളോട് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി